വ്യായാമങ്ങൾ എന്നുവെച്ചാൽ നമ്മുടെ ഒരു നമ്മുടെ ശരീരത്തിനൊരയവ് വരും എന്താണെന്ന് വെച്ചാൽ നമുക്ക് തടിയൊക്കെ കൂടിയവർക്ക് അത് ദിവസേന ഡെയിലി ഓരോ ദിവസവും ഓരോ വ്യായാമങ്ങൾ ചെയ്തു മാറ്റാം എന്നാൽ യോഗ എന്നാൽ നമ്മുടെ ശരീരവും മനസ്സും നല്ല രീതിയിൽ ഒരു നല്ല ഒരു സമാധാനവും അതുപോലെ ആശ്വാസകരമായിട്ട് മാറും നമ്മുടെ മനസ്സിനെയും അതുപോലെ ശരീരത്തിനും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒന്നാണ് യോഗ അപ്പം നമ്മൾ നല്ല രീതിയിൽ ബ്രീത് കൺട്രോൾ ചെയ്യാനും അതുപോലെ നമ്മുടെ നല്ല രീതിയിൽ മനസ്സിനെ സംതൃ സംതൃപ്തി അല്ലെങ്കിൽ മനസ്സിന് ഒരു കുളിർമ വരാനൊക്കെ യോഗ ചെയ്യാം എന്നാൽ വ്യായാമം എന്നുവെച്ചാൽ നമുക്ക് ശരീരത്തിനും ശരീരത്തെ അയവ് ചെയ്യിക്കാൻ പറ്റും ഇപ്പോൾ ശരീരത്തിൽ ഇപ്പോൾ അടിഞ്ഞുകൂടിയ ഫാറ്റൊക്കെ കളയാനും ഒക്കെ നമുക്ക് കഴിയും ഇപ്പം യോഗയെന്നു വെച്ചാൽ നമുക്ക് രണ്ട് ഗുണങ്ങളാണ് ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ സ്വാധീനിക്കാനും അതുപോലെ നിയന്ത്രിച്ചു കൊണ്ടു പോകാനും നല്ല സന്തോഷത്തിലൂടെ ജീവിതം മുന്നോട്ടുപോകാനൊക്കെ യോഗയിലൂടെ നമുക്ക് സാധിക്കും